പാലക്കാട് ജില്ലയിൽ പിന്തുടരുന്ന പ്രധാന തൊഴിലുകൾ എന്നു പറയുന്നത് കൃഷിയും അതിനു അനുബന്ധ തൊഴിലുകളും തന്നെയാണ് എന്നാൽ ടൂറിസം മേഖലയിലും നമ്മുടെ പാലക്കാടിന് വലിയ ഒരു പങ്കുണ്ട് മലമ്പുഴ ഗാർഡൻ ധോണി വെള്ളച്ചാട്ടം നെല്ലിയാമ്പതി മലനിരകൾ സൈലന്റ് വാലി നാഷണൽ പാർക്ക് അങ്ങനെ പോകുന്നു നമ്മുടെ ടൂറിസം മേഖല നമ്മുടെ ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയെയും ആളുകളുടെ ജീവിതരീതിയെയും വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെയാണ് ടൂറിസം മേഖല കാരണം ടൂറിസം മേഖല വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു ഭാഗം ടൂറിസം മേഖലയായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതരീതിയും അവരുടെ സാമ്പത്തികവും എല്ലാം തന്നെ മെച്ചപ്പെടുന്നതാണ്